ജോലി സ്ഥലത്ത് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും പിന്നെ പൊതുവെ നമ്മൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ചില സമയത്തു നമുക്ക് വർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ചില സമയം നമ്മൾ അത് പഠിച്ചുകൊണ്ട് വരികയായിരിക്കും സൊ അതുപോലെത്തന്നെ നമ്മൾ നമ്മളെ മേലെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രഷർ ഉണ്ടാകും അതുപോലെത്തന്നെ നമ്മൾ ചില മിസ്റ്റേക്കുകളൊക്കെ വരുത്താനുള്ള നിറയെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് എന്ത് വന്നാലും നമ്മൾ എല്ലാത്തിനും വളരെ കാം ആയിട്ട് തന്നെ ഹാന്റില് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി വെച്ചത് നമ്മൾ സ്വന്തം നമ്മളെ സ്വന്തം സ്ഥാപനമായിട്ട് തന്നെ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം അതിനെ അങ്ങനെയായി തന്നെ കണ്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോളാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയുള്ളു പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും നമ്മുടെ ചിലപ്പോൾ നമ്മളെ മേലുള്ള നമ്മളെ നമ്മളെ മേലെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മള് നമ്മളെ പ്രഷർ ചെയ്യും അവർ നമ്മളെക്കൊണ്ട് നിറയെ പണി ചെയ്യിപ്പിക്കും സൊ നമുക്ക് പണി എങ്ങനെയാണ് പറഞ്ഞുതരാൻ ആരും ഉണ്ടാവില്ല സൊ നമ്മൾ അന്നേരം എല്ലാം ക്ഷമയോടെ ഹാന്റില് ചെയ്യണം പേഷ്യന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ജോലി സ്ഥാപനത്തില് പിന്നെ നമ്മുടെ സ്വഭാവവും നമ്മള് എല്ലാവരുടെയടുത്തും നമുക്ക് മാക്സിമം മിംഗിളു ചെയ്ത് നന്നായി വർക്ക് ചെയ്യാൻ സാധിക്കണം അതുപോലെത്തന്നെ ജോലി ചെയ്യേണ്ട സമയത്ത് അതിന് ഹൺഡ്രഡ് പെർസൻഡേജ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം എത്ര പ്രശ്നം വന്നാലും നമ്മൾ അതിനെ നമ്മൾ അതിനെ പോസിറ്റീവ് ആയി ഹാൻഡിൽ ചെയ്താൽ വർക്ക് സ്ഥലത്തുള്ളത് പ്രശ്നം വന്നാൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും